സ്കൂള് കാലം പഠിക്കുമ്പോള്ത്തൊട്ടേ എനിക്ക് ഓട്ടത്തില് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാനാ മൻസരങ്ങളിലൊക്കെ സ്കൂള് കാലഘട്ടങ്ങളില് പങ്കെടുക്കാറുണ്ട് എനിക്ക് പിന്നെ ഓട്ടത്തിന് പ്രൈസൊക്കെ കിട്ടി ഓട്ടത്തില് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ സ്കൂൾ തലത്തിലും അതുപോലെതന്നെ എന്താ പ്ലസ് ടു വിദ്യാഭ്യാസകാലത്തൊക്കെ ഞാന് എന്താണ് സ്പോട്ട്സില് വളരെ അധികം പങ്കെടുത്തിട്ടുണ്ട് കാരണം എന്തായിച്ച് കഴിഞ്ഞാല് എനിക്ക് ഓട്ടത്തില് ഭയങ്കര ഇഷ്ടമാണ് പങ്കെടുക്കാന് താൽപര്യം ഉള്ളൊരാളായിരുന്നു പിന്നെ അതുപോലെതന്നെ ഹൈ ജെമ്പ് ലോങ് ജെമ്പ് ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് അതില് വളരെ താൽപര്യമാണ് എന്താ ഓട്ടത്തിൻ്റെ ഇതില് വലിയ താൽപര്യമാണ് പിന്നെ അങ്ങനെ വീട്ടിൽ നിന്നും വളരെ അധികം പ്രോത്സാഹനമൊക്കെ ഉണ്ടായി ഈ സ്പോട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രോത്സാഹനം തരുന്നൊരു കുടുംബത്ത് നിന്ന് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് പിന്നെ എന്താണ് അസ്ബൻഡിനാണെങ്കിലും അതിനൊക്കെ താൽപര്യമാണ് ഇപ്പോള് പഠിക്കുന്ന കാലഘട്ടത്തില് എന്താണ് പിന്നെ പഠിക്കുന്ന കാലഘട്ടത്തില് അതായത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലൊക്കെ ഞാന് ഈ പിന്നെ ഈ ഓട്ടത്തിലൊക്കെ പങ്കെടുത്ത് എനിക്ക് ഒരുപാട് പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ജില്ലയില് സബ് ജില്ലയില് ജില്ലയില് ഒക്കെ മത്സരിക്കാൻ പോയിട്ടുണ്ട് എന്താണ് അങ്ങനെ പിന്നെ അങ്ങനെ വിനോദങ്ങളിലൊക്കെ ഏർപ്പെടാറുണ്ട് ഇപ്പോള് എന്തയിച്ച് കഴിഞ്ഞാല് ഇപ്പോള് ഔസ് വൈ അതായത് വീട്ടമ്മ ആയതിന് ശേഷം പിന്നെ ഞാനീ വീട്ടില്നിന്ന് അങ്ങനെ എന്താണ് നടത്തം അങ്ങനെ ഉള്ളതൊക്കെ അങ്ങനത്തെ ഇതൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങള് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടാക്കിയിട്ട് കുറച്ച് ആളുകള് ഉണ്ട് അവര് ഞങ്ങള് നടക്കാൻ പോകും പിന്നെ അതുപോലെതന്നെ ഇങ്ങനെ എന്താണ് എക്സസൈസിൻ്റെ രൂപത്തിലൊക്കെ അങ്ങനെ ഓട്ടത്തിന് ഓട്ടം ചെയ്യാറുണ്ട് പിന്നെ മത്സരങ്ങള് ചെറിയ ചെറിയ മത്സരങ്ങളൊക്കെ ഞങ്ങള് അയ് പിന്നെ ഇങ്ങനെ ഞങ്ങള് ഒരേ പ്രായത്തിലുള്ള ആളുകള് ഉണ്ടായിട്ട് ഞങ്ങള് ചിലപ്പോള് അങ്ങനൊക്കെ ഒത്തു കൂടുമ്പോള് ഇങ്ങനെ മത്സരങ്ങളും ഉണ്ടാക്കി ഇങ്ങനെ ഓട്ട മത്സരം അങ്ങനെയുള്ള ഓരോ മത്സരങ്ങളൊക്കെ വയ്ക്കാറുണ്ട് അപ്പോള് അത് അങ്ങനെ അതിനൊരു പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോള് അതിനൊക്കെ അസ്ബൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഭർത്താവിൻ ഹസ്ബൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ അധികം പ്രോത്സാഹനമുണ്ട് വീട്ടുകാരായാലൊക്കെ നല്ല രീതിയില് ഒരു പ്രോത്സാഹനം തരുന്നുണ്ട്